ഹലോ ഇത് ആ പച്ചക്കറിയുടെ പീടിക അല്ലേ ആ കുറച്ച് പച്ചക്കറി വേണമായിരുന്നു ഇപ്പോൾ മറ്റന്നാളേക്ക് ഫംഗ്ഷനുണ്ടായിരുന്നു നാളേക്ക് വേണമായിരുന്നു ആ ഇരുപത് കിലോ തക്കാളി ഇരുപത്തഞ്ച് വെള്ളരിക്ക പിന്നെ ഇരുപത് ചെരങ്ങ പിന്നെ മുരിങ്ങ വേണം മുരിങ്ങൻ്റെ റേറ്റ് അനുസരിച്ച് ഇട്ടോളൂ ആ അതിനനുസരിച്ച് ഇട്ടാൽ മതി നിങ്ങൾ ഒരു കിലോ മതി മണത്തിന് പിന്നെ അതേപോലേ ആ പിന്നെ ഉള്ളി ആ പിന്നെ വറവിനുള്ള ആ ഹാ അത് കുറച്ച് മതി അതൊരു കാൽ കിലോ മതി കാൽ കിലോ ആ ആ ഇഞ്ചി ഇഞ്ചിക്ക് എത്രയുണ്ട് റേറ്റ് ആ അപ്പോൾ അതിരിക്കട്ടെ ഒരു കിലോ ഇരിക്കട്ടെ വേണം ആ പിന്നെ പച്ചമുളക് വേണം രണ്ട് കിലോ ആ ആ ആയി ആയി അത് പിന്നെ വറവിന് കുറഞ്ഞിട്ട് എന്താ ഉള്ളത് റേറ്റ് ആ കാബേജോ

ആ കാബേജാവും മൂന്ന് കിലോ കാബേജ് ആ മൂന്ന് കിലോ കാബേജ് മതി ആ കാരറ്റ് കുറച്ച് മതി അത്ര തന്നെ ഒരു കാൽ കിലോ ആ അത് മതി അത് മതി ആ അത് മതി അത് മതി ആ അപ്പം എല്ലാം റെഡിയാക്കുമല്ലോ ഇന്ന് ആ കരിയാമ്പെല ഇരിക്കട്ടെ ഇട്ടിരുന്നോ പിന്നെ മല്ലിയില ആ ആ ആ പുതിയിന ഇരിക്കട്ടെ ആ പിന്നെ വാഴയില ഉണ്ടോ നിങ്ങളെ അടുത്ത് ആയി ആയി ആയി ആയി ആയി ആയി അപ്പോൾ ആയി നാളെ ആയി